ഞാനതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വന്നതാണേ ആ അതിനെന്തൊക്കെ വേണം ഓ ആയിക്കോട്ടെ എപ്പോഴാ അത് പിന്നെ അക്കൗണ്ടിന് വരുമ്പോൾത്തന്നെ കൊണ്ടുവരണോ

ആ ഓ ഓ എല്ലാത്തിന്റേയും എല്ലാത്തിന്റേയും കോപ്പി അല്ലേ കോപ്പി ആ ആ പിന്നെ ഫോട്ടോ രണ്ടെണ്ണം ആ ആ

ആ പെട്ടന്നുതന്നെ റെഡി ആവുമോ ആ ആ ആ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ആയിരത്തഞ്ഞൂറോ സാധാരണ എല്ലാ ബാങ്കിലും ഒരു അഞ്ഞൂറ് രൂപയല്ലേ വേണ്ടൂ അതെയോ ആ ഇപ്പം കുറച്ച് പൈസ കുറവാ സാറേ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ ആ ഫണ്ട് ആ ആയിറ്റ് വരാം എന്നാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനെത്രയാ പൈസ ആവുക അത് വേണ്ടാ ആ എന്നാൽ ഞാനത് ചെയ്യാൻ വരുമ്പം അത് റെഡി ആക്കാൻ വരുമ്പം ഞാൻ എല്ലാം കൂടി ചെയ്യാം എന്നാൽ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സാറേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ